ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള കായിക വിനോദം എതൊക്കെയാണെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് പറയാം പിന്നെ ഈ ക്രിക്കറ്റ് ഫുട് ബോൾ ഹോക്കി അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ ഷട്ടിൽ ബാറ്റ് അങ്ങനെ ഒരുപാട് കായിക വിനോദങ്ങൾ ഉണ്ട് പക്ഷേ കൂടുതലായിട്ടും ക്രിക്കറ്റ് ഫുട് ബോൾ ആണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് കാരണം പെട്ടെന്ന് കായികം എന്ന് പറയുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ക്രിക്കറ്റും ഫുട് ബോളും ഒക്കെയാണ് ഓർമ്മ വരിക അതുകൊണ്ട് തന്നെ കൂടുതൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട് ബോൾ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് ആണുങ്ങൾക്ക് അറിയുന്ന അത്ര കൂടുതൽ പെൺ പെണ്ണുങ്ങൾക്ക് അറിയില്ല പക്ഷേ അറിയുന്നവർ ഒരുപാട് ഉണ്ട് പക്ഷേ കൂടുതലും പെണ്ണുങ്ങളും പെൺകുട്ടികളും കൂടി ഇരുന്ന് കാണുന്നത് ഫുട് ബോൾ ആണ് ഫുട് ബോൾ ആകുമ്പോൾ നമുക്ക് ഗോളടിക്കുന്നത് മാത്രം കണ്ടാൽ മതിയല്ലോ അതായത് ഗോൾ പോയിട്ടുണ്ടേ നമുക്കത് പിന്നേ അവർ റൺ ആയെന്നുള്ളത് നമുക്കറിയാമല്ലോ അതുപോലെ ക്രിക്കറ്റിനെ കുറിച്ച് വലിയ പരിചയമില്ലെങ്കിലും പക്ഷേ ക്രിക്കറ്റിലെ ആൾക്കാരെയൊക്കെ നമുക്ക് അതായത് ഫേമസ് ആയിട്ടുള്ള സച്ചിൻ ടെൻഡുൽക്കർ എം എസ് ധോണി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫുട് ബോൾ ആണെങ്കിൽ നമുക്ക് പറയാം മെസ്സി റൊണാർഡോ നെയ്മർ പിന്നേ ഇപ്പം തന്നെ അതായത് നമ്മുടെ വേൾഡ് കപ്പൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പം അടിപൊളിയാണ് അതൊക്കെ അടിപൊളിയാണ് കൂടുതലും കാണുക ഫുട് ബോളും ക്രിക്കറ്റും ഒക്കെയാണ്